മറ്റു പട്ടണങ്ങളിലേക്ക് സ്കുളുകളിൽ വിദ്യാർഥികൾ പോകുന്നത് ബസ്സിലും ചില വേറെ അതായത് പൈസ ഉള്ളവർ ബസ്സിലും അതേപോലെ തന്നെ തീരെ പാവപ്പെട്ടവർ നടന്നിട്ടും ആണ് പോകുന്നത് അതായത് മികച്ച നിലവാരം വില്ലേജിലെക്കാളും അതായത് ആ വില്ലേജിലെ സ്കൂളിനെക്കാളും ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളിലേക്കാളും പട്ടണത്തിലെ സ്കൂളുകൾ പുലർത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതായത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് നല്ല വിദ്യ സന്നം സമ്പന്നരായ ടീച്ചർമാരും ഒക്കെ ഉള്ളത് പട്ടണത്തിലാണ് അതുകൊണ്ടുതന്നെ ആണ് അതുകൊണ്ടുതന്നെ ഏറ്റവും നിലവാരമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പട്ടണത്തിൽ പട്ടണത്തിലാണ് ലഭിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും ചില ഗ്രാമങ്ങളിൽ കിട്ടുന്നുണ്ട് എന്നാലും വളരെ ചുരുക്കം ചില ഗ്രാമങ്ങളിൽ മാത്രമേ അത്ര വലിയ നിലവാ ഒരു വലിയ നിലവാരം പുലർത്തു പുലർത്തു വലിയ നിലവാരം ഇല്ലെങ്കിലും അത്യാവശ്യം നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കുറച്ച് ചുരുക്കം ഗ്രാമങ്ങളിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പട്ടണത്തിൽ തന്നെയാണ് മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളുകൾ അതായത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉള്ളത് അവിടത്തെ അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് പട്ടണങ്ങളിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് കുറെ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും അതായത് ബസ്സുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഗ്രാമപ്രദേശമാണല്ലോ അങ്ങനെ കുറേ വെല്ലുവികൾ വെല്ലുവിളികൾ സഹിച്ചും ത്യാഗം സഹിച്ചും ഒക്കെയാണ് ഗ്രാമത്തിലെ കുട്ടികൾ പട്ടണത്തിലെ സ്കൂളുകളിലേ അല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്